നമസ്ക്കാരം ഇത് ശ്രീ വിഘ്നേശ്വര റെൻറിങ്ങ് കാർസ് അല്ലേ ഞാ ഞാന് കോങ്ങാടിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് ജ്യോത്സനയാണ് അപ്പോൾ ഞാൻ വിളിച്ച കാര്യം എന്ന് വച്ചാൽ എന്താ പറയുക ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടീട്ട് അടുത്താഴ്ച രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഗോവക്ക് പോകണമെന്നുണ്ട് അപ്പം അതിന് വേണ്ടി കാറ് വാടകക്ക് വേണം അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഞാന് മറ്റേ ദിനേശേട്ടൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ദിനേശേട്ടൻ പറഞ്ഞിട്ടാണ് ഇത് ഇവിടുന്ന് വിളിക്കുന്നതുട്ടോ അപ്പോൾ ആരാണ് ഞാ ഞങ്ങളും ഞാനും രണ്ട് ഫ്രണ്ട്സും കൂടീട്ടാണ് പോകുന്നത് രണ്ട് കൂട്ടുകാർ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുമുണ്ട് അപ്പോൾ ഗോവയ്ക്കാണ് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് അടുത്താഴ്ച എന്ന് വെച്ചാൽ വെള്ളി ശനി ഞായർ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച്ച തിരിച്ച് കാറ് കൊണ്ടുവന്ന് തരാം അപ്പം അതിൻ്റെ റേറ്റ് അതിൻ്റെ എങ്ങനെയാണ് എങ്ങനെയാണ് ഓരോ കിലോമീറ്ററിൻ്റെ വില വിലയെങ്ങനെയാണ് അതെ ഓക്കേ അപ്പോൾ ആ അപ്പോൾ അങ്ങനെയാണല്ലേ അപ്പോൾ എപ്പോളാണ് ഞങ്ങൾ ഞങ്ങളപ്പോൾ എന്താ പറയുക വെള്ളിയാഴ്ച വന്നിട്ട് രാവിലെ പിക്ക് ചെയ്യാം കാറെടുക്കാം ഓക്കേ താങ്ക് യൂ